നമ്മുടെ ഇവിടെ ആരും തോട്ട കൃഷി ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നവരുണ്ട് കൂടല്ലൂർ ഉണ്ട് കൂടല്ലൂർ അമ്പലമുണ്ട് മഹാലക്ഷ്മി ക്ഷേത്രം അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോവും അവിടെയെല്ലാം പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് പപ്പായ പിന്നെ പേരക്ക അങ്ങനെയുള്ള കൃഷി ഇതെല്ലം ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും പിന്നെ ഇതോന്നുല കോവ കോവയ്ക്കാ പിന്നെ കോവയ്ക്ക ഇത് പിന്നെ വെണ്ടയ്ക്ക പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതെല്ലാം വാ വയലാ പച്ചല പചാലാന്ന് പറയും പിന്നെ ഒരു ഇല ഇലയാണ് പിന്നെ ചീര അങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടും പിന്നെ ഇപ്പം കിട്ടുന്നതെല്ലാം വിഷ വിഷങ്ങളുള്ള പച്ചക്കറികളല്ലേ അപ്പോൾ അങ്ങനെ അ അതുകൊണ്ട് നമ്മൾ ചെറുത് ചെറുതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതാക്കും പപ്പായ പിന്നെ ഇത് എന്താന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ചീ ഇത് മറ്റെ ചീര ചീരതന്നെ രണ്ട് മൂന്ന് തരമുണ്ട് പിന്നെ വാഴ വാഴ വാഴ അങ്ങനെ വാഴപ്പഴം വാഴപ്പഴം രണ്ടുമൂന്നുതരം നമ്മൾ വീട്ടിൽ തന്നെ ഇതാക്കി വെ വെള്ളമെല്ലാം ഇപ്പോൾ നമ്മൾ അലക്കിയ വെള്ളമെല്ലാം ഇതെല്ലാം ഇട്ട് അപ്പോൾ നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇത് പുറത്തുന്ന് വാങ്ങിക്കും പുറത്തുന്ന് സീതപ്പഴന്ന് പറഞ്ഞിട്ട് ഒരു പഴമുണ്ട് അതെല്ലാം അതിപ്പോൾ നമ്മളന്നെ വീട്ടിലന്നെ ഉണ്ടാക്കും അത് ഇപ്പളൂണ്ട് വീട്ടിൽ പിന്നെ അത് തിന്നു പിന്നെ സീതപ്പഴം രാമപ്പഴം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ തോട്ടം തോട്ടം കൃഷിന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ഇതൊന്നുല്ല പിന്നെ എവിടെയെങ്കിലും പോയെങ്കിൽ തോട്ടത്തിൽ പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞെങ്കിൽ അവർ തരും അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ ഇത് പിന്നെ പച്ചക്കറി കൃഷി ചെയ്യണന്നന്നെയുണ്ട് മാത്രമല്ല നമ്മളീ മണ്ണും പിന്നെ അതിനുള്ള ഇതും ചെതലാന്ന് ഫുള്ള് അപ്പോൾ എന്ത് ഇട്ടെങ്കിലും ഒരു ഇതായിട്ട് വരുന്നില്ല അപ്പോൾ ഈ മരം ഇങ്ങനെ ഇല്ലേല്ലാം കിഴങ്ങ് അതെല്ലാം ഉണ്ടെങ്കിൽ പെരുച്ചാഴീന്ന് പറയുന്ന ഒരു ഇതുണ്ട് അത് വന്നിട്ട് പിന്നെ എലി എലി ശല്യം ഭയങ്കരം ഇതാണ് അപ്പോൾ അത് നമ്മൾ നട്ടിട്ട് അതിനെ അത് എടുക്കാനാകുമ്പോളേക്കും അവരന്നെ അതിനെ കിളച്ചിട്ട് അവരന്നെ എടുത്തിട്ട് അവരന്നെ ഇതിനെ ഇതാകിട്ട് എല്ലാം ഇതാക്കിയിട്ട് തിന്നുന്നുണ്ട് നമുക്ക് ഒന്നിനും കിട്ടുന്നില്ല പിന്നെ അങ്ങനെ മരച്ചീനി മരച്ചീനി ആയെങ്കിലും അങ്ങനന്നെ നമ്മൾ നട്ടു നട്ടിട്ട് അത് വിളവെടുക്കാനാവുമ്പോളക്കു എന്തെങ്കിലും വന്നിട്ട് അതിനെ തിന്നിട്ട് പോകുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്നില്ല അതേപോലെ ഗ്രോബാഗില് എന്തെങ്കിലും ചെയ്തെങ്കിൽ അതുമാത്രം നമുക്ക് കിട്ടുന്നുണ്ട് മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നമുക്ക് കി കിട്ടുന്നുണ്ട് എന്നാലും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു വിഷമുള്ളതായെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് പുറത്തുന്ന് വാങ്ങുന്നുണ്ട് പിന്നെ ഒരു തോട്ടത്തിലായെങ്കിൽ നല്ലത് വേറെ എന്തെങ്കിലും മറ്റേ ഇത് നല്ല തണുപ്പ് ഉള്ള സ്ഥലം അതെ അങ്ങനെ ഇല്ല ഇതാകുമ്പോൾ നമുക്ക് ഒരു വെള്ളത്തിനും ഇത് ഇതാകുന്നില്ലല്ലോ നല്ല നല്ലതായിട്ട് കിട്ടുന്നുണ്ടല്ലോ വെള്ളം ഇതെല്ലാം പിന്നെ കഴിയുന്നതും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പുറത്തുന്ന് പുറത്തുന്ന് അങ്ങനെ പുറത്തുന്ന് വാങ്ങിക്കാതെ പറ്റില്ല മീനും അങ്ങനെ കൃഷി കൃഷിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ ഇവിടെ അടുത്ത് ഞാൻ നേരത്തെ ചെറുതിൽ ചെറുതിലുണ്ടാകുമ്പോൾ കൃഷിക്ക് അമ്മയെല്ലാം ഒന്നിച്ച് കൃഷി പണിക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ നാട് കീഴൂരാന്ന് പിന്നെ കീഴൂര് ചന്ദ്രഗിരി അപ്പോൾ അവിടെയെല്ലാം എല്ലാവരും കൃഷി ചെയ്യും പിന്നെ മറ്റേ നെല്ല് ഇങ്ങനെ കിഴങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യും പയർ വെണ്ട പയർ മറ്റേ പയർ വൻപയർ അത് വൻപയർ കൃഷിചെയ്തെങ്കിൽ അമ്മയോടൊഒന്നിച്ച് ഞാൻ പോകലുണ്ട് അത് പറിച്ചിട്ട് അമ്മേനെ സഹായിക്കും പിന്നെ ഇത് വെള്ളരി വെള്ളരിക്കും അങ്ങനെ വെള്ളരി മുറിക്കാൻ അമ്മ എൻ്റെ അമ്മ പോകലുണ്ട് ഇപ്പ ഇല്ല അമ്മ ജീവിച്ചിട്ട് അപ്പോ ചെറുതിലെ ഞങ്ങളെല്ലാം അന്നേരം ഒന്നിച്ച് പോയിട്ട് അതിനൊക്കെ സഹായിക്കും അപ്പം നമുക്ക് വേണ്ടത്ര ആ സമയത്തെല്ലാം നല്ലോണം നമുക്ക് പച്ചക്കറി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വൻപയറെല്ലാം നമുക്ക് ആവശ്യത്തിന് അവർ നമ്മൾ ജോലി ചെയ്തെങ്കിൽ അവർ തരും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് അത് പച്ചക്കന്നെ ഇങ്ങനെ അടത്തിയടത്തിയിട്ട് അവർ പച്ചയാന്ന് നമുക്ക് തരല് അവരെല്ലാം ഒണങ്ങിയതെടുത്ത് അതെല്ലാം അങ്ങ് പോ ഇത് കൊടുക്കാ വേണ്ടിയിട്ട് അവർ എല്ലാം വിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇതാക്കിയിട്ട് നമ്മൾ കൊടുക്കണം നമ്മൾ ജോലിക്കാരാണ് അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് തരും അതന്നേരം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉരിഞ്ഞിട്ട് പച്ചയ്ക്ക് അത് കറിവച്ച് തിന്നും അപ്പോൾ അപ്പോഴത്തെ ഭക്ഷണത്തിന് അത് നല്ല ടേസ്റ്റാന്ന് അപ്പം അങ്ങനെയുള്ള ഒരു വിഷങ്ങളോ ഒരു കാര്യങ്ങളോ ഒന്നും ഇടൂല അപ്പോൾ നമ്മൾ ആ സമയത്തുള്ള ഭക്ഷണം ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ ഇപ്പം അപ്പം അപ്പോഴുള്ള ഭക്ഷണത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എന്ത് കൃഷി ചെയ്തതെങ്കിലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല